ഞങ്ങളുടെ പ്രദേശത്ത് കൂടുതലായിട്ട് കാണുന്നത് ആ തെരുവോരങ്ങളിലൊക്കെ ഒരു ചെറിയ പക്ഷി അങ്ങാടിപ്പക്ഷി എന്ന് പറയുന്ന പാ പക്ഷി ഇനങ്ങളെ കാണാറുണ്ട് പിന്നെ കൊക്ക് കാക്ക പിന്നെന്താണ് കുരുവികളുടെ പല ചെറിയ കുരുവികള് വലിയ കുരുവികളൊക്കെ കാണാറുണ്ട് പിന്നെ പച്ചിലക്കുടുക്ക എന്ന് പറഞ്ഞിട്ടുള്ള പക്ഷികള് കാണാറുണ്ട് പിന്നെ വവ്വാല് അങ്ങനെത്തെ പക്ഷിയിനങ്ങളാണ് കൂടുതലായിട്ട് കണ്ടു വരുന്നത് പിന്നെ ഈ ഒരു എന്താണ് ഈ ഇടയായിട്ട് ഏ മയിലിന്റെ സാന്നിധ്യം കൂടുതലാണ് പിന്നെ പിന്നെ വളരെ റെയർ ആയിട്ടാണ് ഓരോ ഹെ മൈന മൈനകളൊക്കെ വളരെ റെയർ ആയിട്ടാണ് കാണാറുള്ളത് പിന്നെ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കാൻ ഇഷ്ടമെന്ന് പറയുന്നത് ചെറിയ പക്ഷികളെ നിരീക്ഷിക്കാനാണ് കൂടുതല് താൽപര്യം